ആ മേഡം ഞാൻ റ്റാറ്റാ ഡി ടി എച്ചിൽ നിന്നാണേ അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അതെ രണ്ട് ദിവസം മുന്നേ വിളിച്ച് കുറച്ച് തിരക്കിൽ പെട്ടുപോയ കാരണം വൈകിയതാണ്

ഓക്കേ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സൈഡിൽ ഇൻസ്റ്റാള് ചെയ്യാലോ ഇവിടെ ഈ തെങ്ങിൻ്റവടെ ഈ തെങ്ങ് പട്ട വെട്ടാൻ പറ്റൂലെ ഇങ്ങക്ക്

ആ ഈ പട്ടെൻ്റെ ഈ ഒരു പട്ട വെട്ടി പറഞ്ഞാൽ കുറച്ചുംകൂടി എളുപ്പമായിരുന്നു നമുക്ക് സിഗ്നൽ ഒന്നുംകൂടി ക്ലാരിഫൈയായിട്ട് കിട്ടും ഓക്കേ അപ്പം ഞാൻ ഇതിവിടെ ഇൻസ്റ്റാളെയ്യാം ആ അല്ല നമുക്കിപ്പോൾ പുതിയ കസ്റ്റമർ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ആറ് മാസത്തെ പാക്കേജ് നിങ്ങൾക്ക് ഫ്രീയായിട്ട് തന്നെ കിട്ടും ഇത് ഇത് ഇതിലേക്ക് മാറിയതുകൊണ്ട് റ്റാറ്റാ ഡിടിഎച്ചിലേക്ക് മാറിയത് കൊണ്ടുതന്നെ നിങ്ങൾക്കതിനുള്ള ഓരോഫറാണ് ഇത് ആറുമാസം നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ പോലെ ഫ്രീ ആയിട്ട് കിട്ടും ചാനാല്കളൊക്കെ എല്ലാ ചാനലുകളും കിട്ടും സ്പോർട്സ് ചാനലുകളുൾപ്പെടെ എല്ലാ ചാനലുകളും നിങ്ങൾക്ക് അവൈലബിളായിരിക്കും ആറുമാസത്തിന് അവൈലബിളായിരിക്കും ആ ഇതിപ്പം ഇൻസ്ടാലിങ്ങിന് മൂവായിരം രൂപയാണ് ചാർജ് വരിക എല്ലാത്തിനുംകൂടി ഈ സെറ്റബ് ബോ അതുതന്നെ എല്ലാത്തിനുംകൂടി ഈ സെറ്റബോക്സ് ഉൾപ്പെടെ ഈ കുടയും ഇത് എല്ലാത്തിനുംകൂടിയാണ് ഈ ചാർജ് വരുന്നത് ഇതിൻ്റെ ഈ മൂവ്വായിരത്തിലാണ് ഈ ഇപ്പോൾ വന്നെൻ്റെ സർവീസ് ചാർജ് ഉൾപ്പെടെ എല്ലാം ഇതിലാണ് വരിക പിന്നെ ഈ ആറുമാസത്തെ നിങ്ങൾക്ക് ഈ പ്രീ സബ്സ്ക്രിപ്ഷനും ഇതിനോടൊപ്പം കിട്ടും ഓക്കേ അല്ലെ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്ലാന് വരുന്നത് പിന്നെ ഇതിൻ്റെ ആ അപ്പോൾ ഇതിലിപ്പോൾ ആറ് മാസം നിങ്ങൾക്ക് ഫ്രീ കിട്ടും അത് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി ഇപ്പോൾ ഇരുന്നൂറ്റി പത്തുരൂപ അങ്ങനെയാണ് മലയാളം പാൻ ചാനല് മാത്രമായിട്ട് നമുക്ക് ഇരുന്നൂറ്റിപത്തുരൂപക്ക് റീചാർജ് ചെയ്താൽ മതിയാവും ആ വേറെ ചാനല് ചെയ്യണമെങ്കിൽ അതേതാ ചാനല് പറഞ്ഞാൽ അത് മാത്രമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും നമുക്കിതില് അതിന് എട്ടുരൂപയോ അഞ്ചുരൂപയോ അങ്ങനെന്തോ വരുന്നുള്ളൂ വ ഏത് ചാനലാണോ അതിനനുസരിച്ചിട്ട് ഒരുമാസത്തേക്ക് നിങ്ങൾക്കിപ്പോൾ അങ്ങനേയും ആഡ് ചെയ്യാം അല്ല പറഞ്ഞാൽ മറ്റേ സ്പോർട്സ് ചാനൽ ആ അത് മുന്നൂറ് അത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപവരും സ്പോർട്സ് ചാനലുകളുൾപ്പെടെ ഹിന്ദി തമിഴ് മലയാളം കന്നഡ എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള ചാനലുകള് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ചാനലുകള്ണ്ടാവും ഈ ഒരു പായ്ക്കിന് അതിനു ഈ പാക്ക് ഡീറ്റെയിൽസ്ൻ്റെ ഒരു ബുക്ക് നമുക്ക് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതില് നോക്കീട്ട് നിങ്ങൾക്ക് ഏത് പാക്ക് ആണോ വേണ്ടത് അതിനനുസരിച്ച് റീചാർജ് ചെയ്താൽ മതിയാവും പിന്നേ ഇതിൻ്റെ സർവീസ് വരുന്നത് ആറുമാസം കൂടുമ്പോൾ നമ്മള് ഇതുവന്ന് ചെക്ക് ചെയ്യും എന്തെങ്കിലും സിഗ്നല് കമ്മി ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചേക്കേയ്തോളും പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എങ്കിൽ വിളിച്ചാൽ മതിയാവും ആ ഗൂഗിൾ പേ വഴിയോ ഇല്ലെങ്കിൽ ഡിടിഎച്ചിൻ്റെ ഒരാപ്പുണ്ട് ഡിടിഎച്ചിൻ്റെ അതിലുകൂടിയും നമുക്ക് റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാം അതേപോലെ അതിൽ തന്നെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിതന്നെ നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ പറ്റും അതേപോലെ സർവീസിനും അതിതന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു പേജുണ്ട് അതില് കയറി നമുക്ക് സർവീസ് ചെയ്തതാണോ എന്താണോ പ്രോബ്ലം ആ സർവീസിന് അതില് കൊടുത്തു പറഞ്ഞാൽ നമുക്ക് അതിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കസ്റ്റമർകെയർ നമ്പറിലേക്ക് വിളിച്ചാലും മതിയാവും ടോൾ ഫ്രീ നമ്പറാണ് അതിക്കു വിളിച്ചു പറഞ്ഞാൽ രണ്ടുദിവസ്സത്തിനുള്ളിൽ വന്നിട്ടവര് ശരിയാക്കിത്തരും

ആ അപ്പോൾ നമുക്ക് ഇതിവിടെ ഇൻസ്റ്റാള് ചെയ്യാം നിങ്ങളിപ്പോൾ ഇൻസ്റ്റാള് ചെയ്തിട്ടുണ്ട് ഇനീപ്പോ എന്തേലും കംപ്ലൈന്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് വിളിച്ചാൽ മതി കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് ആ അതിക്ക് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാള് ചെയ്തിട്ട് അതിക്ക് മെസ്സേജ് അയക്കന്തെങ്കിലും ചെയ്താലും മതിയാവും ഓക്കേ അല്ലെ ഓക്കേ താങ്ക്യൂ